ആ ചേച്ചി പറയൂ

ആ ആ ആ നെന്മാറ വല്ലങ്ങി വേലയെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ നെന്മാറ ഇപ്പോൾ നിങ്ങൾ എവിടെനിന്നാണ് വരുന്നത് സ്ഥലം

നമ്മുടെ പാലക്കാട് ടൗണിൽനിന്ന് ബസ്സ് കയറുവാണെന്നു പറഞ്ഞാൽ നെന്മാറക്കുള്ള ബസ്സ് കയറിയാൽ കറക്റ്റ് ബസ്സ് സ്റ്റോപ്പിൽ വന്നിറങ്ങാം ബസ്സ് സ്റ്റാന്റുണ്ട് ബസ്സ് സ്റ്റാന്റിൻ്റെ അവിടെനിന്ന് ഒരു പത്തടി ബസ്സ് സ്റ്റാന്റിൽനിന്നു ഉള്ളിലേക്ക് ഇപ്പോൾ ഉള്ളിലേക്കല്ലാ അത്രയൊന്നും പോവാനില്ല ഒരു ആ ഒരു നൂറു ഇരുന്നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ ആ വേല രാവിലെ ഉണ്ട് വൈകുന്നേരം ഉണ്ട് അത് രണ്ടു ദിവസത്തെ വേലയാണ് ഒരു ദിവസം കൊടിയേറ്റം പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ അന്ന് പഞ്ചവാദ്യം ചെറിയതോതിലുള്ള വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പിറ്റേ ദിവസം ഒരു പരിപാടികളൊക്കെ ഉണ്ടാകും ഇപ്പോൾ നേർച്ചകളുണ്ടാകും ഓരോ ചെറിയ ചെറിയ അമ്പലങ്ങളുടെ ശരിക്കുമെന്ന് പറയുമ്പോൾ രണ്ടു ദേശക്കാർ മെയിനായിട്ട് രണ്ടു ദേശക്കാർ ആണ് നെന്മാറ ദേശവും വല്ലങ്ങി ദേശവും തമ്മിലുള്ള ഒരു എന്താണ് പറയുക പരിപാടിയാണത് രണ്ടു ദേശമാണ് മെയിനായിട്ടുള്ളത് അതിൽ അവർ അവരുടേതായ കാഴ്ച പൂരങ്ങളും ആനപ്പൂരം ആനകളുണ്ടാവും രണ്ടു കുട്ടരിലും പതിനൊന്നു പതിനൊന്നു ആനയുണ്ടാവും

ആ സദ്യയൊക്കെ ഉണ്ടാവാറുണ്ട് രാവിലെ നിങ്ങളെത്ര നേരത്തെ എത്തുകയാണേൽ അത്രയും ബെറ്റർ ആയിരിക്കും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അന്നത്തെ ദിവസം അധികം ബസ്സുണ്ടാവില്ല തലേ ദിവസം രാവിലെ ഉണ്ടാവുകയുള്ളൂ ഉച്ച കഴിഞ്ഞാലൊരു പത്തു പത്തര ആ സമയത്തോടു കൂടി പിന്നെ ബസ്സുകൾ ഉണ്ടാവില്ല ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും ഫുള്ള് ബ്ലോക്കായിരിക്കും പിന്നെ വണ്ടിയിലൊക്കെ വരാം വണ്ടിയിലൊക്കെ വന്ന് അതായത് വണ്ടി ഏകദേശമൊരു ഒരു കിലോ മീറ്റർ മുമ്പ് പോലീസ് ബാരിക്കേഡ് വെച്ചു തടുക്കും അത്രയും തിരക്കായതുകൊണ്ട് വണ്ടികളൊക്കെ ബൈക്കുകളൊക്കെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി തടുക്കാൻ തുടങ്ങും എല്ലാ വണ്ടികളും ആ വെടിക്കെട്ട് വൈകുന്നേരം ഒരു അഞ്ചര ആറു മണിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും വെടിക്കെട്ട് രണ്ടു ടീമിന്റെയാണ് അപ്പോൾ അടുത്തടുത്തു തന്നെയായിരിക്കും പൊട്ടിക്കലുണ്ടാവുക കാരണം ആ ഏകദേശം നോക്കിയാൽ കാണുന്ന ദൂരത്തു തന്നെയാണ് അത് പൊട്ടിക്കലുണ്ടാവുക അപ്പോൾ ഒരു ടീമിൻ്റെ ഒരു പത്തു മിനിറ്റ് ചിലപ്പോൾ പന്ത്രണ്ടു മിനുട്ടൊക്കെ ചിലപ്പോൾ നീണ്ടു നിൽക്കും മറ്റേ ടീം അതിനനുസരിച്ചിപ്പോൾ ഒരു അഞ്ചേ മുക്കാലിന് ആണെന്ന് പറയുമ്പോൾ അഞ്ചേ മുക്കാൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറച്ചിലേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും ആറ് ആറര ചില സമയത്ത് ഏഴുമണിയൊക്കെ ആവും പിന്നെ മറ്റേ ടീം എന്തായാലും ഒരു ഏഴ് എട്ടു മണിയൊക്കെ ആകുമ്പോഴേക്കും പൊട്ടിക്കും എന്തായാലും അടുത്തടുത്ത സമയങ്ങളിൽ പൊട്ടിക്കും ഏഴു മണിക്കാണെങ്കിൽ ഏഴര ഏഴേ മുക്കാൽ ആ സമയത്തൊക്കെ പൊട്ടിക്കും പിന്നെ അല്ലല്ല രണ്ടും സപ്പറേറ്റ് തന്നെയാണ് ഒരെണ്ണം കഴിഞ്ഞിട്ട് തന്നെയാണ് ഒരെണ്ണം ചില കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം മഴയൊക്കെ വരണ ആ ഒരു പ്രശ്നം മഴ അങ്ങനെ ചാറാൻ തുടങ്ങിയത് കൊണ്ട് രണ്ട് ടീമും ഒരുമിച്ചു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒറ്റക്ക് ഒറ്റക്ക് തന്നെയാ പൊട്ടിക്കാറ് അതുപോലെ പുലർച്ചക്കും രണ്ടു ദിവസമല്ല വൈകുന്നേരവും ഉണ്ടാകും പുലർച്ചയും ഉണ്ടാകും രണ്ടു വെടിക്കെട്ട് ഉണ്ടാകും നമ്മടെ അധികം നാട്ടുകാരെന്നു പറയുമ്പോൾ ഇതിവിടുത്തെ ദേശക്കാർ എല്ലാത്തിനും ഉണ്ടാകും പക്ഷെ കുടുതലായിട്ട് ദേശക്കാര് പുലർച്ചെ വെടിക്കെട്ടിനാണ് കുറച്ചുകൂടി ഉണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്നു വന്നവരൊക്കെ ഏകദേശം പോവും തിരിച്ചു പോകും കുറെ അധികം ആൾക്കാര് തിരിച്ചു പോകും അധികം ദേശക്കാരാണ് ആ സമയത്തു ഉണ്ടാവാറ് അമ്പലത്തിൻ്റെ ആ അതുതന്നെ അമ്പലത്തിൻ്റെ സ്ഥലം സ്വന്തം സ്ഥലമാണ് അമ്പലത്തിൻ്റെ സ്വന്തം സ്ഥലം തന്നെയാണ് പാടം കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സ്വന്തമായിട്ടു മേടിച്ചിട്ട് ഒരു എട്ട് ഒമ്പത് ഏക്കറ് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇത് കഴിഞ്ഞാൽ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഉത്സവ ആവാറാകുന്ന സമയത്ത് കൃഷിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് പാടമൊക്കെ ഫുള്ളാക്കിയിട്ടു സെറ്റാക്കി ഇടും പിന്നെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞു അമ്പലത്തിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും കൃഷിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ വെടിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതായത് ഏകദേശമൊരു പത്തു എഴുപത് ശതമാനം ആൾക്കാരും തിരിച്ചു പോകും അപ്പോൾ കുറച്ചു നേരത്തു ഒരു ബ്ലോക്കും കാര്യങ്ങള് ഒരു ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറിൻ്റെ തിരക്കും തിക്കും തിരക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും എല്ലാവരും ഈ ഒരുമിച്ചു പോവണ കാര്യം കൊണ്ട് അധികം ബൈക്കും കാറൊക്കെ ആയിരിക്കും പിന്നെ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവാമെന്ന് മാത്രം പതുക്കെ പതുക്കെ ഇങ്ങനെ പോവാം മെല്ലെ ചെറിയ ചെറിയ ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും വഴി കുറച്ചു ചെറുതായത് കാരണം കൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ അത്രേയുള്ളൂ എൻ്റെ പേര് സുരേഷ് ആ ഓക്കെ ഓക്കെ വരൂ വരൂ കുഴപ്പമൊന്നുമില്ല ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഓക്കെ നമ്മളിവിടെ ഉണ്ടാകും എല്ലാ കാര്യത്തിനും കമ്മിറ്റിയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും വിളിച്ചാൽ മതി കേട്ടോ